ഹലോ ഞങ്ങൾ ഒരു ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോകുവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്നൊരു ഊബർ ടാക്സി വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ ആയതാണ് ഡെയ്റ്റും ടൈമും എല്ലാം കൊടുത്തതാണ് എന്നാൽ ഞങ്ങളിപ്പം ഇവിടെ കാത്തു നിൽക്കുകയാണ് ആളെ വിളിച്ചിട്ട് കിട്ടുന്നും ഇല്ല ആളെ കാണാനും ഇല്ല ഇപ്പം ഞങ്ങൾക്ക് ടൈമായി സമയം ഷെഡ്യൂള് സമയത്തിനേക്കാളും എക്സ്ട്ര ആയി അതുകൊണ്ട് കംപ്ലെയിൻ്റ് ചെയ്യാൻ വിളിച്ചതാണ് അദ്ദേഹം വിളിച്ചിട്ട് ഫോണെ എടുക്കുന്നില്ല പേയ്മെൻ്റ് ആദ്യം തന്നെ ചെയ്തതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ കംപ്ലെയിൻ്റ് ഇപ്പോൾ ഇത് ഇതൊരു കംപ്ലെയിൻ്റ് ആണ് അദ്ദേഹം ഫോണും എടുക്കുന്നില്ല ഒരു ഇതും പറയുന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം എല്ലാവരും ഞങ്ങൾ നിൽക്കുന്നുണ്ട് പക്ഷേ ആളെ കാണുന്നില്ല ഇതൊരു കംപ്ലെയിൻ്റ് ആയിട്ട് സ്വീകരിക്കണം